ഞാൻ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഒരു ഷോപ്പിൽ അക്കൗണ്ടിങ്ങായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് നമ്മളിവിടെ കാലിത്തീറ്റ കാലിത്തീറ്റ കോഴിത്തീറ്റ മീൻ തീറ്റ അങ്ങനത്തെ പിന്നെ അങ്ങനത്തെ ഫീഡ്സ് ഐറ്റംസ് ആയിരുന്നു അവിടെ വിറ്റ് കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ കാലി തീറ്റ ഇറക്കുന്നത് ഒരു വർഷം ഇത്ര കാലിതീറ്റ അപ്പോൾ നമ്മൾസൊസൈറ്റികളിലേക്ക് കൊടുക്കനുണ്ടാവും പിന്നെ സാധാരണ ഫാം നടത്തുന്ന ആൾക്കാർ വാങ്ങും സൊസൈറ്റി കളിലാവുമ്പോൾ നമ്മളൊരു നൂറു ബാഗ് അൻപത് ബാഗൊക്കെ ചില മാസങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് ചിലർ നൂറ്റൻപത് ഇരുനൂറ് ബാഗ് വരെ ഇറക്കും അപ്പോൾ നമുക്കിങ്ങനെ ഒരോ ബാഗിന് ഇൻസെൻറ്റീവ് ഇത്ര രൂപ ഇൻസെൻറ്റീവ്ന്നുണ്ട് അപ്പം ഞാൻ ചെന്ന പിന്നെ ചെന്ന ഒരു ഞാൻ ജനുവരിയിലാണ് കയറിയത് അപ്പോൾ മാർച്ച് നമ്മുടെ ഇയർ എൻഡിങ് ആണല്ലോ അപ്പം അവിടുത്തെ മുതലാളി എന്നോട് പറഞ്ഞു നാലുവർഷത്തെ ഇൻസെൻറ്റീവും പിന്നെ നമുക്ക് വന്ന കാലി തീറ്റെൻ്റെ മാത്രം കേട്ടോ പിന്നെ കണക്കെടുക്കാൻ പറഞ്ഞു അതെനിക്ക് കുറച്ച് ടഫ് ആയിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ നോക്കിയെടുക്കൽ കുറച്ച് റിസ്ക്കായിട്ട് തോന്നി എന്താ പറയാ അത് നമ്മൾ കൈകാര്യം ചെയ്യാൻ തന്നെ ചെല്ലുന്നു ആ വർക്കിലോട്ട് കടക്കുന്നു വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ ആ സമയത്ത് സമയമുണ്ടായിരുന്നില്ല കാരണം ഇൻസെൻറ്റീവ് കൃത്യമായിരിക്കണം നമുക്ക് എത്ര ബാഗ് തന്നിട്ടുണ്ടെന്ന് നോക്കണം ആ ബാഗിന് എത്ര രൂപ ഇൻസെൻറ്റീവായിരിക്കണം ഓരോ സമയത്ത് ഇൻസെൻറ്റീവിന് വേരിയേഷൻ വന്നിട്ടുണ്ട് ഒരേ ഇൻസെൻറ്റീവ് ആയിരിക്കില്ല തുടക്കം തൊട്ട് കൊടുക്കുന്നത് അപ്പെല്ലാം നോക്കി ചെയ്യാനുള്ള ഒരിത് അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ ചെയ്ത് ചെയ്യാൻ പറ്റി എനിക്ക് പക്ഷേ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പിന്നെ ആളും നമ്മുടെ സാറും സഹായിച്ചത് കൊണ്ട് അതങ്ങ് ചെയ്ത് പോകുന്നു